അ ഹലോ എന്റെ ഡിജീ ലോക്കർ അക്കൗണ്ടില്ലെ അ ആ അക്കൗണ്ടിന്റെ പാസ്വേഡ് ആരോ ആക്സസ്സ് ചെയ്തതു പോലെ എനിക്കൊരു സംശയമുണ്ട് കാരണമെനിക്കങ്ങനൊരു മെസ്സേജ് വന്നതുപോലെ പക്ഷെ ഞാൻ പാസ്വേഡ് മാറ്റിയിട്ടുമില്ല അതുകൊണ്ട് എനിക്ക് എനിക്കെന്റെ പാസ്വേടൊന്നു ഡിജി ലോക്കറിന്റെ പുതിയ പാസ്വേഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തു തരുമോ അപ്ഡേറ്റ് ചെയ്തു തരിക മാത്രമല്ല അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് എന്റെ എല്ലാ സിസ്റ്റത്തിൽ നിന്നും അത് ലോഗ് ഔട്ട് ചെയ്തും കൂടി തരുമോ കാരണം അങ്ങനെ ലോഗ് ഔട്ട് ചെയ്തു തന്നില്ലയെന്നുണ്ടെങ്കിൽ അവരയച്ച ഇ ഇൻകേയ്സ് അവരെന്റെ പാസ്വേഡ് ആക്സസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതു കൊണ്ടൊരു പ്രയോജനമില്ലാതായിപ്പോകും മാറ്റുന്നതു കൊണ്ട് അതുകാരണമാണ് എല്ലാറ്റിനകത്തു നിന്നും ലോഗ് ഔട്ട് ആകുകയാണെങ്കിൽ അവരുടെ സിസ്റ്റത്തിൽ നിന്നും ലോഗ് ഔട്ട് ആകുമല്ലോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പം വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പം എനിക്കിവിടെ നിന്നു ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സഹായത്തിനു വേണ്ടി വിളിച്ചത് ഇത് ലോഗ് ഔട്ട് ചെയ്തിട്ട് ഞാൻ പുതിയ പാസ്വേഡ് വെച്ചിട്ടു ആക്സസ്സ് ചെയ്തോളാം അപ്പം അതൊന്ന് എത്രയും പെട്ടെന്നൊന്നു ചെയ്തു തരാമോ കാരണം എന്റെ ഡിജി ലോക്കർ അക്കൗണ്ട് ഇപ്പം വേറൊരാൾ ആക്സസ്സ് ചെയ്തതായിട്ടാണെനിക്കു തോന്നുന്നത് അപ്പം പെട്ടെന്നൊന്നു ചെയ്തു തരണം